ഹലോ സൂപ്പർവൈസർ അല്ലേ അല്ല ഈ തക്കാളിക്ക് ഇപ്പോൾ എത്രയാണ് കിലോ വില

ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്

ആണോ

ആണ് അല്ലേ ഓഫർ ഉണ്ടോ

ആ ആ ആ അല്ല ഫർണിച്ചർ ഈ മരത്തിന്റെ അലമാര ഒക്കെ ഇല്ലേ അയ് അതിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത് ബേസിക് പത്ത് അല്ലേ ആ ആ വീട്ടിലേക്ക് ഫുൾ ആയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാനായിരുന്നു

ആ ആ ആ ആണ് അല്ലേ

ആ അല്ല ഈ ടേബിളിന്റെ ലേറ്റസ്റ്റ് മോഡൽ ഒക്കെ ഉണ്ടാവുമോ ആ ആ ആ അല്ല അപ്പം ഡെലിവറി ചാർജ് ഒക്കെ എങ്ങനെയാണ് അല്ല ഈ ഫർണിച്ചർ വീട്ടിൽ എത്തിച്ച് തരില്ലേ ഇല്ല അല്ലേ അപ്പം നമ്മൾ തന്നെ അവിടുന്ന് കൊണ്ട് വരണം അല്ലേ

ആ ആ ഇത് ഇപ്പോൾ തുടങ്ങിയ കമ്പനി ആണോ ആ ആ ആണോ ആ ആ ആ എന്നാൽ ആയിക്കോട്ടെ ഓക്കെ ആ ആ ആ ഞാൻ വരാം വരാം